പാമ്പ് കടിയോ പ്രാണികളുടെ കുത്തലോ പോലുള്ള മൃഗങ്ങളുടെ കടികളില്നിന്ന് നമുക്ക് സുരക്ഷിതമായിരിക്കാന് ഒരുപാട് മാര്ഗങ്ങളുണ്ട് ആദ്യമായിട്ട് നമുക്ക് പറയാന് സാധിക്കുന്നത് രോഗം വരുന്നതിനേക്കാള് വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കള് നല്ലതാണ് രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് അതുപോലത്തെ ഉള്ളൊരു മാര്ഗമാണ് നമ്മൾ ഇതിലും സ്വീകരിക്കേണ്ടത് നമ്മള് കൂടുതലും വയുമായിട്ട് ഈ മൃഗങ്ങളുമായിട്ട് ഇടപഴകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യാന് കഴിയുന്ന കാര്യങ്ങള് മൃഗങ്ങളുമായിട്ട് ഇടപഴകാതിരിക്കുക എന്ന് പറഞ്ഞാല് ഇപ്പോളൊരു കാടുള്ള അവസ്ഥയിലേക്കോ ഇതുപോലുള്ള ജീവികള് കാണാനുള്ള സാധ്യതയിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മള് കൂടുതല് പോകാതിരിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതുകൂടാതെത്തന്നെ ഇപ്പോളൊരു വീടുകളില് വീടുകൾ നമുക്ക് ഒട്ടനവധി പാമ്പ് കയറുന്നതായിട്ട് നമുക്ക് സര്വ്വസാധാരണമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള അവസ്ഥകളില് നമ്മള് സാധാരണ മനുഷ്യര് ഇതുങ്ങളെ ഇവയെ കൈകാര്യം ചെയ്താല് നമുക്കത് വളരെ അപകടമായി തീരും ഇതുപോലുള്ള മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പ്രത്യേകം പരിശീലനം കിട്ടിയ ആള്ക്കാര് നമ്മുടെ ഇടയിലുണ്ട് അത് നമ്മുടെ ഗവണ്മെന്റിന്റെ ഒരുപാട് സംവിധാനങ്ങളും അതിനുണ്ട് അപ്പോള് ഇത്തരം ജീവികളെ കൈകാര്യം ചെയ്യുന്നത് നമ്മള്ക്ക് പരിചയ സമ്പന്നരിലുള്ള പരിചയസമ്പന്നരായ ട്രെയിനെഡ് ട്രെയിനിഡ് പീപ്പിള്സ് മാത്രമേ ഇതിനോട് ഇടപഴകാൻ പാടുള്ളൂ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ സാധാരണ ജനങ്ങളായ നമ്മള് ഇതിനോട് ഇടപഴകാതിരിക്കുക ഇവയെ കൈകാര്യം ചെയ്യാതിരിക്കുക അങ്ങനെ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇവയുടെ ഉപദ്രവങ്ങളില്നിന്ന് നമുക്ക് രക്ഷ നേടാവുന്നതാണ് ഒരുപാട് പേരെ ഈ പാമ്പുകള് കടിക്കുന്നത് പൊതുവായും പാമ്പുകള് നമ്മളെ തിരഞ്ഞ് പിടിച്ച് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കാറില്ല നമ്മള് അവയെ ഉപദ്രവിക്കുകയോ അവരെ ശല്യപ്പെടുത്തുകയോ ചെയ്താല് മാത്രമേ അവ നമ്മളെ തിരിച്ചും ഉപദ്രവിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ പാമ്പുകള് പൊതുവേ മനുഷ്യരെ എല്ലാ ജീവികളും പൊതുവേ മനുഷ്യരെ പേടിയുള്ള ജീവികളാണ് അവര്ക്ക് ശല്യമായിത്തീരുകയോ അവരുടെ ദേഹം വേദനിക്കുകയോ അവര്ക്ക് ഉപദ്രവകരമായിത്തീരുന്ന എന്തെങ്കിലും കാര്യങ്ങള് നമ്മള് ചെയ്താല് മാത്രമേ അവ പൊതുവേ മനുഷ്യരെ ആക്രമിക്കാറുള്ളൂ അവയെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും നമ്മള് ചെയ്യാതിരിക്കുകയാണെങ്കില് അവ നമ്മളെയും തിരിച്ചൊന്നും ചെയ്യാതിരിക്കും എന്നുള്ളതാണ് വാസ്തവം നമ്മൾ അവയെ പ്രകോപിപ്പിക്കും തോറും അതുങ്ങള് അവ അവ പേടിച്ച് അവരുടെ രക്ഷാമാര്ഗമാണ് നമ്മുടെ മനുഷ്യരെ കടിക്കുന്നത് ഒരു അവര് അവരുടെ ഒരു രക്ഷാ ഉപാദിയായിട്ടാണ് അവര് മനുഷ്യരെ കടിക്കുകയും ആ വഴി ആ സമയംകൊണ്ട് രക്ഷപെടുകയും ചെയ്യുന്നത് പക്ഷെ ഇതുവഴി ഒരുപാട് മനുഷ്യര്ക്ക് ഒരു ജീവന് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പാമ്പ് കടിയേല്ക്കുന്നത് കൂടാതെ മൃഗ പ്രാണികളുടെ കുത്തലുകള് കുത്തലും കടന്നല് തുടങ്ങിയ തേനീച്ച തുടങ്ങിയ ജീവികളുടെ കുത്തു കൊള്ളുന്നത് വളരെ വേദനാജനകമായൊരു അവസ്ഥയാണ് ഈ ഇവ ഒഴിവാക്കാന് നമുക്ക് പൊതുവേ ഏറ്റവും നല്ലത് ഇവയെ കൈകാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തേനീച്ച കർഷകർ സാധാരണയായി ഈ ഇതൊരു സര്വ്വസാധാരണമായിട്ടൊരു കാര്യമാണ് ഈ തേനീച്ചയെ തേനീച്ചയുടെ കുത്തൽ കൊള്ളുക എന്നുള്ളത് ഈ തേനീച്ചയുടെ കുത്തൽ കൊള്ളുക എന്നുള്ളത് വളരെ സാധാരണമായൊരു കാര്യമാണ് അത് നമ്മള് തേൻ കൈകാര്യം ചെയ്യുമ്പോഴും തേൻ തേൻ എടുക്കുന് ഉപയോഗിക്കുമ്പൊഴും ഒക്കെ എല്ലം നമുക്ക് ഇത് കൊള്ളാവുന്നതാണ് അപ്പോൾ ഈ അതിന് ആവശ്യമായ സേഫ് സേഫ്റ്റി എടുത്തതിന് ശേഷം മാത്രമേ നമ്മള് ഇതുപോലുള്ള ജീവികളെ നമ്മള് കൈകാര്യം ചെയ്യാന് പാടുള്ളതുള്ളൂ പാടുള്ളൂ അതുപോലെത്തന്നെ കടന്നലുകള് നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെ ഈ കടന്നലുകള് കൂട് വെയുക്കുന്നത് മൂലം നമ്മൾ ഇത് കളയാന് ഇതിനെ ഉന്മൂലനം ചെയ്യാന് ഉപയോഗിക്കുമ്പോഴോ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അപകടം പറ്റുന്നത് അപ്പോള് ഏറ്റവും സുരക്ഷിതമായ രീതിയില് ഇവയെ ഉന്മൂലനം ചെയ്യാന് നമ്മള് ശ്രമിക്കുക അതുകൂടാതെ ഈ പലവിധ പ്രാണികളുടെയും ആക്രമങ്ങളില് നിന്ന് രക്ഷപ്പെടാന് പ്രാണികൾ ഏറ്റവും കൂടുതൽ വരുന്നത് വെളിച്ചത്ത് വെളിച്ചമുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് ലൈറ്റ് വെട്ടത്തിന്റെ അടിയില് തുടങ്ങിയ സ്ഥലത്തെക്കെയാണ് പ്രാണികള് വരുന്നത് അപ്പോൾ ഇവിടെ ഇവയുടെ കടികളില്നിന്നും കുത്തലില്നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി വെളിച്ചമുള്ള സ്ഥലങ്ങളില് നമുക്ക് വെളിച്ചമുള്ള ലൈറ്റിന്റെ അടിയില് പോയി ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കിയാല് നമുക്കൊരു പരിധിവരെ ഇവ ഒഴിവാക്കാവുന്നതാണ്